എനിക്ക് പ്രതേകിച്ച് ഉള്ള കഴിവുകൾ എന്ന് പറയുമ്പോൾ ഞാൻ നന്നായി ചിത്രം വരക്കും അപ്പോൾ ഞാനാ സ്കൂൾ ടൈമിൽ ഒക്കെ റെക്കോർഡും മറ്റു കാര്യങ്ങളൊക്കെ ചിത്രം ഒക്കെ വരക്കാറുണ്ടായിരുന്നു പക്ഷെ ചെറുപ്പത്തിൽ എനിക്ക് ഇങ്ങനെ ചിത്രം വരയ്ക്കാൻ ഉള്ള കഴിവൊന്നും സത്യത്തിൽ ഉണ്ടായിരുന്നില്ല പിന്നീട് ചിത്രങ്ങൾ വരച്ചിട്ടൊക്കെയായിരുന്നു എനിക്ക് കുറച്ചുകൂടി ആ ഒരു കഴിവിനെ കുറച്ചുകൂടി ഞാൻ എന്താ പറയുക ഡെവലപ്പ് ചെയ്തത് അപ്പോൾ ഫ്രണ്ട്സുകൾ ഫ്രണ്ട്സിനൊക്കെ ഞാൻ ചിത്രങ്ങളൊക്കെ വരച്ച് കൊടുക്കാറുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്നു തന്നെ ചിത്രങ്ങൾ വരക്കാനുള്ള പെട്ടെന്നു തന്നെ ചിത്രങ്ങൾ കാണുമ്പോൾ തന്നെ അത് വരയ്ക്കാൻ ഉള്ളൊരു അല്ലെങ്കിൽ സമയം കുറച്ച് വേഗം വേഗം ഇന്ന സമയത്തിനുള്ളിൽ വേഗം തന്നെ വരച്ച് തീർക്കാൻ സാധിക്കും സാധിക്കാറുണ്ട് അപ്പൊ ആ ഒരു ചിത്രം വരക്കാൻ എന്ന രീതി ചിത്രം വരക്കുന്ന ആ ഒരു കഴിവിനെ തീർച്ചയായും എല്ലാ ദിവസവും അല്ലെങ്കിൽ എപ്പോഴും നമ്മളതിനെ എന്താ പറയുക പരി നന്നായിട്ട് നമ്മൾ കുറച്ചുംകൂടി ഡെവലപ്പ് ചെയ്ത് വന്നാൽ നമുക്ക് നന്നായിട്ട് ചിത്രങ്ങൾ വരക്കാൻ സാധിക്കുകയുള്ളൂ